നമ്മുടെ സ്ഥലങ്ങളിലെ കലകളും കലകൗശലവസ്തുക്കളൊക്കെ സിനിമകളില് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പ കേരളത്തിലെ തന്നെ പലതരം കലകള് ഇപ്പോ നമ്മള് പലതരം കലകള് അതായത് തിരുവാതിര കഥകളി ഇതൊക്കെ തന്നെ നമ്മുടെ സിനിമകളിലുടള ഉടനീളം നമ്മുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അത്പോലെ കരകൗശല വസ്തുക്കളായാലും നമ്മുടെ നാടൻ തനിമയെ സൂചിപ്പിക്കുന്ന പലതരം പലതരം വസ്തുക്കളും നമ്മുടെ സിനിമയില് ഉപയോഗിച്ച് കാണാറുണ്ട് നമ്മള് പല സിനിമകളിലും ഇന്ന് ഉണ്ട് അപ്പം നമ്മുടെ എന്താണ് വള്ളം ഇപ്പോൾ വള്ളമായാലും നമ്മുടെ ചുണ്ടൻ വള്ളം ഇപ്പം നമ്മുടെ നമ്മളത് നമ്മുടെ നമ്മുടെ സ്ഥലത്തുള്ള ഒര് വസ്തുവാണ് വള്ളമെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ പല പല പല സിനിമകളിലും അതിനെ അതിനെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത്പോലെ നമ്മുടെ എന്താണ് നമ്മുടെ കലകള് നമ്മുടെ കലകളിലായാലും പലതരം കലകളുണ്ട് നമുക്കിവിടെ കലകളി കലകളിൽ തന്നെ നമ്മുടെ നൃത്തമായാലും അത്പോലെ സംഗീതമായാലും ചിത്രകലയായാലും ഇവയെല്ലാം തന്നെ നമുക്ക് സിനിമയിൽ ഉടനീളം കാണാപറ്റും നമ്മുടെ വസ്ത്രധാരണരീതി വസ്ത്രധാരണം വെള്ളത്തിൻ്റെ കാണുന്ന വസ്ത്രധാരണമൊക്കെ സിനിമയില് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച്പോ ഉപയോഗിച്ച് വരുന്നുണ്ട് നമുക്കതൊക്കെ സിനിമയിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഫാഷൻ ഷോകൾള് പരസ്യങ്ങളില് ഒക്കെ നമ്മുടെ നാടൻ നാടനും അത്പോലെ മറ്റ് മറ്റേ രീതിയിലുള്ള വസ്ത്രങ്ങൾ അവ ഈ കലകള് അത്പോലെ കരകൗശലവസ്തുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫാഷൻ ഷോയിൽ തന്നെ നമ്മള് നാടൻരീതി മോഡേൺ രീതി അങ്ങനെ വെറൈറ്റി രീതിയില് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തനത് വസ്ത്രമായിട്ടുൾ തനത് വസ്ത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോൾ കോമണായിട്ട് നമ്മള് കാണപ്പെടുന്ന നമ്മുടെ ഇത് സെറ്റ് സെറ്റ് സാരി മുണ്ട് അങ്ങനത്തെ ആ ഒരു വസ്ത്രം തന്നെ നമ്മുടെ കൂടുതല് ഫാഷൻ ഷോകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അത്പോലെ വസ്ത്രങ്ങള് വസ്ത്രങ്ങള് ഉപയോഗിക്കാറുണ്ട് അത്പോലെ കലകളിൽ തന്നെ ഇപ്പം കലകള് കലകള് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ വേർതിരിച്ച് കാണിക്കാറുണ്ട് കോമണായിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള അതിലെല്ലാംതന്നെ നമ്മുടെ നമ്മുടെ സ്ഥലങ്ങൾലെ ഈ വസ്തുക്കളും ഇട്ട് ഇതില് ഉപയോഗിക്കാറ്ണ്ട് പരസ്യങ്ങള് കൂടുതലും കൂടുതല് അവയ്ക്ക് കൂടുതല് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ ഇത്തരം ഇതിലൊക്കെ ഇത് ഉപയോഗിച്ച് കരകൗശല വസ്തുക്കളും മറ്റു ഒക്കെ ഉപയോഗിച്ച് കാണാറുണ്ട്